ഹലോ ആരാണ് ആരാണ് ആ ആ ആ ആ ഓക്കേ ആ നോക്കിയായിരുന്നു നോക്കിയായിരുന്നു ആ കുഴപ്പമില്ല എനിക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഒ ന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പെയ്മെൻ്റിൻ്റെ കാര്യവും ഡേറ്റും

ആ വിളിക്കാം വിളിക്കാം ആ

അപ്പോ ഞാൻ സാധാരണ ബാങ്ക് അക്കൗണ്ടിലാണ് ഇട്ടു കൊടു ക്കുനത് അപ്പോൾ എനിക്ക് അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഇത് ക്രെഡിറ്റ് ചെയ്തേക്കാം അതായിരിക്കും എനിക്കും സൗകര്യം എന്ത് പറയുന്നു

ആ പിന്നെ ആ പറഞ്ഞോളു ആ ആ ഞാൻ വാട്സാപ്പിൽ അയച്ചേക്കാം അതായിരിക്കും എനിക്ക് സൗകര്യം ഞാൻ ഒരു ഏഴ് ഏട്ട് മണിക്കുള്ളിൽ ഞാൻ അയച്ചേക്കാം അപ്പം അതനുസരിച്ച് എനിക്ക് പിറ്റേന്ന് സാധനങ്ങൾ കൊടുത്തയച്ചാൽ മതി

ആ ആ ചെയ്തോളൂ ഒരു മാസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ അത് പെയ്മെൻ്റ് കാര്യത്തിൽ ക്ലിയറാണ് എന്നുള്ളത് അപ്പം അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഓക്കേ എന്നാൽ ഓക്കെ വരാം വരാം ഓ ശരി എന്നാൽ അപ്പോൾ അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആവട്ടെ ശരി എന്നാവട്ടെ ആ